മലയാള ഭാഷയെക്കുറിച്ച് സാധാരണയുള്ള തെറ്റിദ്ധാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ മലയാളം മാത്രമായിട്ട് സംസാരിക്കുന്നവർക്ക് വിദ്യാഭ്യാസക്കുറവുണ്ട് അതായത് ഇംഗ്ലീഷൊക്കെ അതായത് കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കാനാണല്ലോ ഇപ്പോഴത്തെ തലമുറകൾ കൂടുതലും ഇപ്പം മലയാളം മലയാളം ഇപ്പോൾ പകുതി ഒരു ഇരുപത് ശതമാനം മലയാളവും ബാക്കി എൺപതു ശതമാനം ഇംഗ്ലീഷും ഉൾക്കൊള്ളിച്ചു പറയുന്നവരാണ് ഇപ്പോൾ കൂടുതലും ആൾക്കാർ അപ്പം എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അപ്പം മലയാളത്തിനെ നമ്മളിങ്ങനെ അടിച്ചമർത്തുന്ന പോലെത്തൊരു ഇതാണല്ലോ അപ്പം അങ്ങനെയാണ് കൂടുതൽ പേരും ഇപ്പം അവർക്ക് എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഷ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് കൂടുതൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാത്രം ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്നവർക്ക് എന്തോ വലിയ സംഭവമാണെന്നോ മലയാളം മലയാള ഭാഷ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഭയങ്കര കുറച്ചിലാണെന്നൊക്കെ ചിന്തിക്കുന്നവരാണ് ഇപ്പോൾ കൂടുതലും ഇനി അത് എങ്ങനെ പരിഹരിക്കാം എന്നു വച്ചിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ തെറ്റിദ്ധാരണ ആദ്യം മാറ്റുക അതായത് മലയാളം നമ്മുടെ മാതൃഭാഷ ആണ് നമ്മളത് കേട്ടിട്ടാണ് ഇത്രയും കാലം വളർന്നത് അപ്പം മലയാളം നല്ലോണം സംസാരിക്കാൻ നോക്കുക മലയാളത്തിനെ നമ്മളിങ്ങനെ അടിച്ചമർത്താണ്ടിരിക്കുക